എൻ്റെ സമൂഹത്തിലെ പ്രശസ്തമായ കൂട്ടായ്മകളെന്ന് പറഞ്ഞാൽ ഓണം വിഷു ക്രിസ്മസ് ന്യൂ ഇയർ പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം ഞങ്ങൾക്ക് വളരെ പ്രശസ്തമാണ് പ്രശസ്തമായ കൂട്ടായ്മകളെക്കുറിച്ച് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും വരികയും അന്നത്തെ ദിവസം ഓണത്തിനാണെങ്കിൽ ഞങ്ങൾ അമ്പലത്തിൽ പോവുകയും അതിരാവിലെ എഴുന്നേറ്റ് പൂക്കളം ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു ചെയ്യും പൂക്കളം ഇടുന്നതാണ് ഞങ്ങൾ ഞാനും എൻ്റെ ചെറുതിലെ ഞാനും എൻ്റെ അനിയനൊക്കെ കൂടിയിട്ട് പറമ്പിലൊക്കെ പൂക്കൾ പറിക്കാൻ പോവുമായിരുന്നു അത് നല്ലൊരു ആസ്വാദ്യകരമായ ഒരിതാണ് അത് പറിഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഫീൽ ആണത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്ന് പൂവ് കട്ടെടുക്കുകയും പൂക്കൾ കട്ടെടുക്കുകയും പറമ്പിലൊക്കെ പോയിട്ട് അവിടുന്ന് പൂക്കൾ പറിക്കുകയൊക്കെ ചെയ്തിട്ട് അതൊക്കെ ശേഖരിച്ചിട്ട് എത്ര പൂക്കൾ കിട്ടുമെന്നോ പൂക്കളും ഇലകളൊക്കെ ശേഖരിച്ചിട്ടാണ് ഞങ്ങൾ പണ്ട് കാലത്ത് ഞങ്ങളുടെ മുമ്പത്തെ കാലത്ത് പൂക്കളം ഇട്ടുണ്ടായത് ഇട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എനിക്ക് കുട്ടികളായി എൻ്റെ കുട്ടികളാണ് എൻ്റെ മകനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പൂക്കളെടുക്കാൻ പോകുന്നത് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പൂക്കളല്ലേ ഓണത്തിന് പൂക്കളം ഇടാൻ ഉപയോഗിക്കുന്നത് നമ്മൾ അങ്ങനെ അല്ലായിരുന്നു പൂക്കളം ഇടുന്നത് ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പകുതി പൂക്കളും കടകളിൽ നിന്നാണ് വാങ്ങുന്നത് മുമ്പൊക്കെ കടകളിൽ നിന്ന് വാങ്ങുന്നത് കുറവാണ് വീട്ടിൽ നിന്ന് കിട്ടുന്ന പൂക്കളും പിന്നെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതും പറമ്പിൽ അങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് കുറേ ദൂരം ഒക്കെ നടന്നിട്ട് പോയിട്ടാണ് പൂക്കളൊന്നും ശേഖരിക്കുന്നത് പലതരം കളറുകളും പിന്നെ ഇലകളൊക്കെയാണ് പൂക്കളം ഇടാൻ ഉപയോഗിച്ചിരുന്നത് എൻറെ അനിയൻ നന്നായിട്ട് വരയ്ക്കും അവനാണ് ഞങ്ങൾക്ക് പൂക്കളം ഇടാൻ വരയ്ക്കുന്നത് അന്നത്തെ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂക്കളൊക്കെ പൂക്കളമൊക്കെ അവൻ വരയ്ക്കും പൂക്കളം എന്നിട്ട് ഞങ്ങൾ അതിലൊക്കെ പൂക്കളൊക്കെ ഇട്ട് നമ്മുടെ എന്താണ് പറയുക അടുത്ത പരിപാടിയിലേക്ക് പോകും ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കാനില്ലേ അപ്പം അമ്മയും അമ്മയുടെ അനിയത്തിമാരും അവരൊക്കെ ഇരുന്നിട്ട് സദ്യ ഉണ്ടാക്കും അതിലേക്ക് നമ്മൾ കൂടും ചെറിയ നമ്മളുടേതായ ചെറിയ ചെറിയ ഹെൽപ്പ് ഒക്കെ നമ്മൾ ചെയ്തുകൊടുക്കും പിന്നെ പറയുവാണെങ്കിൽ എൻ്റെ അനിയത്തിമാർ അവരൊക്കെ കൂടിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയും എല്ലാവരുമൊത്ത് ചേർന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത് നല്ല ആസ്വാദ്യകരമായ ദിവസങ്ങളാണ് ഈ ഓണം വിഷു എന്നൊക്കെ പറയുന്നത് വീട്ടിലെല്ലാവരും ഒത്തുചേരുകയും അവരോടൊത്ത് നമ്മളുടെ എന്താണ് പറയുക നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഒന്ന് വേറെയാണ് അന്നത്തെ ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു ഊഞ്ഞാലൊക്കെ കെട്ടുമേ അത് നമ്മൾ മാറി മാറി നിന്നിട്ടാണ് ആടാണ് ആടാറ് ഫസ്റ്റ് ഇപ്പം ഒരാൾ ആടിയാൽ എന്ന് പത്ത് വരെ എണ്ണും പത്ത് പ്രാവശ്യം ഒരാൾക്ക് ആടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് നമ്മൾ ആടുന്നത് പിന്നെ അടുത്ത ആൾ ഇരിക്കും അതുപോലെ പത്ത് പ്രാവശ്യം ആടിയിട്ട് പിന്ന അടുത്താളിരിക്കും അങ്ങനെയാണ് നമ്മൾ ഊഞ്ഞാൽ കെട്ടുന്നത് എല്ലാരും വിചാരിക്കുന്നത് പോലെയല്ല ഞങ്ങൾ ഊഞ്ഞാൽ കെട്ടുന്നത് മരത്തിൽ കെട്ടിയിട്ട് കയർ കൊണ്ട് അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സാരിയൊക്കെ എടുത്തിട്ടാണ് ഊഞ്ഞാൽ കെട്ടാറുള്ളത് അമ്മയുടെ സാരിയെടുത്തിട്ട് തെങ്ങിൻ്റെ രണ്ട് തെങ്ങ് ചേർത്ത് കെട്ടിയിട്ടാണ് നമ്മൾ കസിൻസ് ഒക്കെ ഒന്നിച്ചിരുന്ന് ആടുകയൊക്കെ ചെയ്യും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും പലതര പലതരത്തിലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും അമ്മയും ചേച്ചിമാരൊക്കെ നിന്നിട്ട് അത് എന്നിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഫുഡ് കഴിക്കുന്നത് തന്നെ ആസ്വദിച്ച് കഴിക്കും പായസവും പപ്പടവും എന്താണ് പറയുക സാമ്പാർ പിന്നെ ഉപ്പേരി അങ്ങനെ പലതരത്തിലുള്ള ഫുഡ് ഉണ്ടാവും നമ്മുടെ വീട്ടിൽ അന്നത്തെ ദിവസം എല്ലാവരും ഒത്ത് കൂടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ വളരെ സന്തോഷമാണ് നമ്മൾ ഒരു ദിവസം മുമ്പിങ്ങനെ ആസ്വദിച്ച് നിൽക്കും ഓ നാളെ ഓണം ആണല്ലോ എല്ലാവരും വരുമല്ലോ നമ്മുടെ വീട്ടിൽ എല്ലാവരെയും കാണാമല്ലോ അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ച് ഇരിക്കുക ഇപ്പോഴെന്ന് പറഞ്ഞെങ്കിൽ അത് കുറഞ്ഞ് വരുന്നുണ്ട് എല്ലാവരും അവരവരുടെ ജോലി തിരക്കായി അവരുടെ ആവശ്യങ്ങളായി വരാൻ പറ്റാതെയായി അങ്ങനെക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ മുമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല